ഈ പറയുന്നപോലെ വർഷങ്ങള്കൊണ്ട് ഇന്ത്യൻ വിനോദ വ്യവസായം വളരീതിയില് വലിയ രീതിയിൽത്തന്നെ വികാസം പ്രാപിച്ചിട്ടുണ്ട് അപ്പോള് അതിനകത്ത് മെയിനായിട്ട് ആൾക്കാരെ അട്രാക്റ്റെയ്യുന്നത് പുറത്തുനിന്നുള്ള ഫോറിനേഴ്സിനെ അട്രാക്റ്റെയ്യുന്നത് മെയിനായിട്ടും നമ്മുടെ ഡാൻസ് മ്യൂസിക്കൊക്കെത്തന്നെയാണ് പിന്നെ എന്താണ് പറയാനുള്ളത് ഡ്രാമ ഫിലിം കോൺസേർട്ട് ഗെയിംസ് റേഡിയോ ആൻഡ് ടെലിവിഷൻ ഇത് ഇതൊക്ക ഇതിനൊക്കെ ഒരു രണ്ടാം സ്ഥാനമാണ് ഉള്ളത് പക്ഷെ ഫിലിംസിന് വലിയ ഒരൂ എന്താണ് സ്വീകാര്യത ഈ അടുത്ത ടൈമിലൊക്കെ കണ്ടു വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും അത് ബാക്കി ഉള്ളവരിലേക്ക് ഒരു അട്രാക്ഷൻ വരുന്നുണ്ട് പക്ഷെ എന്നിരുന്നാല്ക്കൂടി ഒരൂ എന്താണു പറയുക ഒരൂ ഫോറിനേഴ്സിന് ആ ടൂറിസം ഇതിലൂടെ നമ്മുടെ ഒരു വളർന്നത് എങ്ങനെയാണ് ഇന്ത്യൻ ടൂറിസം ഫോറിനേഴ്സിലേക്ക് കുറച്ചുകൂടെ വളർന്നതും എങ്ങനെയാണെന്ന് ചോദിച്ചാല് മെയിനായിട്ട് മ്യൂസിക് ആൻഡ് ഡാൻസ് നമ്മുടെ എന്താണ് നമ്മുടെ പ്രാചീനമായിട്ടുള്ള കുറേ കലാരൂപങ്ങള് നമ്മുടെ മ്യൂസിക് അതൊക്കെ പുറത്തുള്ളവരെ ഭയങ്കരമായിട്ട് അട്രാക്റ്റെയ്യുന്നു ഇപ്പോള് നമ്മുടെ കഥകളി ഓട്ടംതുള്ളൽ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപ്പുടി അങ്ങനെ ഉള്ള നമ്മുടെ കുറച്ച് നാടൻ കലകള് സോറി നമ്മുടെ പ്രാചീന കലാരൂപങ്ങള് പിന്നെ നാടൻ കലകള് തെയ്യം തിറ അങ്ങനുള്ള കാര്യങ്ങളൊക്കെയാണ് എങ്കിലും ഫോറിനേഴ്സിനെ വളരെയധികം അട്രാക്റ്റെയ്യുന്നേ പിന്നെ നമ്മുടെ ഓരോ മ്യൂസിക് ഐറ്റംസ് നമ്മുടെ ഇപ്പോള് ക്ലാസിക്കൽ മ്യൂസിക്കാണെങ്കിൽ കർണാട്ടിക് മ്യൂസിക്കാണെങ്കിലും അങ്ങനുള്ള കാര്യങ്ങളൊക്ക ഫോറിനേഴ്സിനെ വളരെയധികം അട്ട്രാക്റ്റെയ്യുന്നതാണ് അവർക്ക് അവരെ കുറേ നേരത്തേക്ക് പിടിച്ചിരുത്താൻ പറ്റിയ കാര്യങ്ങളാണ് അതിനകത്തൊക്കെ ഉള്ളത് അപ്പോള് ഒരു ഫോറിനര് വന്നാൽ നമുക്ക് സാധാരണ അറിയുന്ന കാര്യമാണ് എന്താണ് എന്താണ് കഥകളി കാണാൻ അല്ലാന്നുണ്ടെങ്കില് ഇതുപോലെ നമ്മുടെ പ്രാചീന കലാരൂപങ്ങളൊക്കെ കാണാൻ വേണ്ടി അവര് ഒരുപാട് അട്രാക്റ്റെയ്യുന്നുണ്ട് അപ്പോള് അത് വേണ്ട രീതിയില് ഉപയോഗിക്കാതെ പോകുകയായിരുന്നു കുറച്ച് നാള് മുമ്പു വരെ പക്ഷെ ഇപ്പോള് അത് നല്ല രീതിയില് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് കുറേക്കൂടെ ഒരൂ എന്താണ് ഒരു അറ്റെൻഷൻ കിട്ടിത്തുടങ്ങിയത് കിട്ടിത്തുടങ്ങിയതല്ല പണ്ട് തൊട്ടേ അറ്റെൻഷനുള്ളത് നമ്മുടെ ഈ ഇവിടത്തെ കുറേ എന്താണ് പ്രാചീനമായിട്ടുള്ള നമ്മുടെ എന്താണ് ഒരുപാട് ഇപ്പോള് പറയാനുള്ളത് താജ്മഹൽ അല്ലെന്നുണ്ടെങ്കില് നമ്മുടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ അട്രാക്റ്റെയ്യുന്ന പ്ലെയിസസൊക്കെ ഇഷ്ടമ്പോലെയുണ്ട് അതും ഫോറിനേഴ്സിനെ അട്രാക്റ്റെയ്യുന്നൊരു ഘടകമാണ് അതില് മെയിൻ വിനോദരൂപങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നതില് നമ്മുടെ ഡാൻസും മ്യൂസിക്കും തന്നെയാണ് ഏറ്റവും കൂടുതല് മുന്നിൽ നില്ക്കുന്നത് അപ്പോള് ഈ പറഞ്ഞപോലെ ഡ്രാമ നമ്മുടെ കോൺസേർട്സ് പിന്നെ എന്താണ് നമ്മുടെ ടെലിവിഷൻ റേഡിയോ പ്രോഗ്രാം അതൊക്കെയുണ്ട് എങ്കിൽകൂടി ഞാൻ നേരത്തേ പറഞ്ഞതുപോലെ നമ്മടെ മ്യൂസിക്കും ഡാൻസുമാണ് ഫോറിനേഴ്സിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റെയ്യുന്നത്